ചേട്ടാ നമസ്കാരം ഞാൻ ഇവിടെ പാലക്കാട് നിന്നാണ് വിളിയ്ക്കണത് എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കണത് ഞാനിപ്പോൾ എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പാലക്കാടു നിന്ന് ഇവിടെ നിന്ന് തന്നെയാണ് പാലക്കാട് റെയിൽ വേ സ്റ്റേഷൻ്റവിടുന്ന് എനിക്ക് ഇപ്പോൾ ചെന്നൈയിലേയ്ക്കൊരു ട്രിപ്പ് ട്രിപ്പല്ല ഒരു ക്യാബ് എട്ടാം തീയ്യതി വൈകുന്നേരം ഒരു എട്ട് എട്ടരയ്ക്ക് ആണ് പോകേണ്ടത് ഞങ്ങളൊരു മൂന്നാളുണ്ടാവും അപ്പോൾ അതിൻ്റെ റേയ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഒന്ന് അവിടെ ചെന്നൈയിൽ എയർപോർട്ടിൻ്റെ ആ എയർപോർട്ടിലേയ്ക്ക് ആ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി അത് മതി അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് അറിയാനേ പിക്കപ്പ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ഇവിടെത്തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപില് നിൽക്കാം അപ്പോൾ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്